എനിക്ക് വളരെ അധികം ഇഷ്ടപ്പെട്ട ഒരു സാഹിത്യകാരനാണ് വൈക്കം മുഹമ്മദ് ബഷീർ അദ്ദേഹത്തിൻ്റെ നോവലുകൾ ശ്രദ്ധിച്ചാൽ അറിയാം വളരെ ലളിതമായ രീതിയിലും എഴുതി പ്രണയത്തെ കുറിച്ചും അതുപോലെ നഷ്ട പ്രണയത്തെ കുറിച്ചും അത് ഉണ്ടാക്കുന്ന ആഘാതങ്ങളെക്കുറിച്ചും അദ്ദേഹം നന്നായിട്ട് എഴ്തി ഫലിപ്പിക്കുന്നുണ്ട് അതു വായനക്കാരിൽ നല്ല രീതിയിൽ തന്നെ എത്തിക്കാനും അദ്ദേഹത്തിന് സാധിക്കുന്നുണ്ട് അതുകൊണ്ടു തന്നെ വൈക്കം മുഹമ്മദ് ബഷീർ രചിച്ച പ്രശസ്തമായ നോവലുകളിലൊന്നാണ് മതില് അതുപോലെ തന്നെ പാത്തുമ്മയുടെ ആട് ബാല്യകാലസഖി അങ്ങനെ ഉള്ള അദ്ദേഹം ഇതൊക്കെ അദ്ദേഹത്തിൻ്റെ പ്രശസ്ത നോവലുകളാണ് ഇതിൽ മതിലുകളാണ് എനിക്ക് വളരെ ഇഷ്ടം മലയാളത്തിലെ പ്രശസ്തമായ ഒരു പ്രേമ കഥയാണ് ഇത് അത് മറ്റ് കൃതികൾ കൃതികളെ പോലെ തന്നെ ആത്മ കഥ പരമായ ഈ നോവലും രാഷ്ട്രീയ തടവുകാരായ ജയിലിൽ കഴിയുന്ന ബഷീർ അവിടെ നേരിടുന്ന ചില അനുഭവങ്ങളാണ് ഈ ലഘു നോവൽ ആവിഷ്കരിക്കുന്നത് ഒരു മതിലിനപ്പുറമുള്ള സ്ത്രീയെ ജയിലിൽ ജയിലിലെ നാരായണി എന്ന് സ്ത്രീയുമായി പ്രണയത്തിലാവുകയും എന്നാൽ അതൊരിക്കലും സഫലം ആകാതെ പോവുകയും ചെയ്യുന്നു ഒരു നഷ്ട പ്രണയത്തിൻ്റെ വേദനയാണ് നോവൽ നമുക്ക് പകർത്തുന്നത് ഇതിലെ നായകൻ ബഷീർ തന്നെയാണ്